ആ സാറേ ഇത് ഞാൻ കുമരകത്ത് പതിനൊന്നാം വാർഡിന്നാണ് ജോർജുട്ടീന്ന് പറയും എൻ്റെ കൺസ്യൂമർ നമ്പര് നാൽപ്പത്തിയാറ് ഇരുപത്തി എട്ടാണ് എനിക്ക് ഇപ്പോള് ഈയിടെ ആയിട്ട് സാറേ ഭയങ്കര കറണ്ട് ചാർജ് ആവുന്നെ ഈ ചൂട് കൂടൽ കാരണം ഫാനും പിന്നെ നമ്മുടെ എ സി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോള് നമ്മുടെ ഇലക്ട്രിക് വയറിങ് ഒന്നും നവീകരിക്കാന്നുള്ളൊരു പ്ലാനുണ്ട് അപ്പോള് സാറേ നമുക്ക് ഈ എന്തെങ്കിലും സർക്കാരിൽ നിന്നല്ല സബ്സിഡികൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ നമുക്ക് അതുപോലെതന്നെ ഈ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഗവൺമെൻ്റ് ആനുകൂല്യങ്ങൾ ഊർജ കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും സംഭവം ലഭിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനുള്ളൊരു പദ്ധതികളെക്കുറിച്ച് സബ്സിഡികളെ കുറിച്ചും സാര് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരികാരിന്നെങ്കില് വലിയൊര് കാര്യമായിരുന്നു ഇതിപ്പോള് ഭയങ്കര കറണ്ട് ചാർജാണ് മാസാ മാസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോള് ഈ അങ്ങനെ എന്തെങ്കിലും ഊർജ്ജപദ്ധതികൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വയറിങ്ങിന്റെ കൂടെ തന്നെ അതും കൂടെ അങ്ങ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇരട്ടി ചെലവാണ് പിന്നീട് അത് വരികയാണെങ്കിൽ കൂടുതൽ പൈസ അതിനുവേണ്ടിയിട്ട് മുടക്കേണ്ടി വരും അപ്പോള് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതൊന്ന് അവിടുന്ന് അറിയിക്കുകയായിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരുന്നു